നമ്മുടെ വീടുകളില് നമ്മളെന്താണ് അടുക്കളയില് പല പല പാത്രങ്ങള് യൂസ് ചെയ്യാറുണ്ട് അതായത് പാത്രം ഗ്ലാസ് അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ആ പാത്രത്തിലാണെൽ നമ്മള് ഫുഡ് കഴിക്കും അതേപോലെതന്നെ ഗ്ലാസിലാണെങ്കിൽ നമ്മള് വെള്ളം പോലുള്ള ഡ്രിങ്സൊക്കെ കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതേപോലെ നമ്മള് ഓരോരോ ടൈപ് സ്പൂണുകളുണ്ട് ഇങ്ങനെ ഫുഡ് നമുക്ക് ഇളക്കാനും അതിനൊക്കെയായിട്ട് അതേപോലെത്തന്നെ പല പല പാത്രങ്ങള് നമ്മള് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്തതാണ് എണ്ണയിലിട്ട് കടിയും അതെപോലൊ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചീനച്ചട്ടി അതേപോലെ ഓരോന്നും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇഡ്ഡലിൻ്റെ പാത്രം അതേപോലെ നമ്മൾ പല പല വെള്ളം ചൂടാക്കാനാണെങ്കിൽ സാദാ ചെമ്പ് പോലെ ഉള്ള ഇതിലൊക്കെ നമ്മള് ഉപയോഗിക്കാറുണ്ട് സ്പൂണ് തന്നെ പല പല ടൈപ്കള്ണ്ട് ഓരോരോ കറികള് ഇളക്കാൻ ചെറിയ സ്പൂണ് വലിയ സ്പൂണ് ചായണ്ടാക്കാനാണെങ്കിൽ തന്നെ നമ്മൾ വേറൊരു പാത്രമാണ് ഉപയോഗിക്കുക പിന്നെ മുട്ട പൊരിക്കാന് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പാനൊക്കെ ഉപയോഗിക്കും അതേപോലെ പല പല പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ചെമ്പ് ചീനച്ചട്ടി പിന്നെ നമ്മൾ എന്താണ് പല പല സ്നാക്സ് പോലുള്ള കാര്യങ്ങളുണ്ടാക്കാനാണെങ്കിൽ തന്നെ പലപല പാത്രങ്ങള് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയപ്പം പോലെണ്ടാക്കാനാണെങ്കിൽ ഒര് കുഴിഞ്ഞ പാത്രമൊക്കെയാണ് നമ്മള് യൂസ് ചെയ്യുക അതേപോലെ പാന് നമുക്ക് ഒരുപാത്രത്തിൽ തന്നെ പണ്ടത്തെ കാലഘട്ടമെന്ന് പറയുമ്പം തന്നെ എന്താണ് നെല്ല് ഇപ്പം പൊടിക്കാനാണെങ്കിലും അതേപോലെ പല പല ആവശ്യങ്ങൾക്ക് നമുക്ക് കുറെ പാത്രങ്ങള് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒരു പുതിയ മോഡേണായിട്ടുള്ളൊരു കൾച്ചറിലേക്ക് നമ്മള് വന്നപ്പോൾ എല്ലാത്തിനും ഈ പാത്രങ്ങളുടെ എണ്ണമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നു ഇപ്പം നമ്മള് കുക്കറൊക്കെയാണ് ഇപ്പം പണ്ട് നമ്മള് കലത്തിലൊക്കെയാണ് എന്താണ് അരിയൊക്കെ ചൂടാക്കി വേവിച്ചിരുന്നത് എങ്കില് ഇപ്പം നമ്മള് മൊത്തം കുക്കറിലാണ് അതേ പോലെ ഓരോരോ കാര്യങ്ങള് മോരുകറിയുണ്ടാക്കാനാണെങ്കിലും എല്ലാം നമ്മൾ ചീനച്ചട്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പണ്ട് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം എന്താണ് എല്ലാം കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങള് ഇണ്ടക്ഷൻ കുക്കറ് അങ്ങനെ അടുപ്പിൽ നിന്ന് നമ്മള് ഉണ്ടാക്കി കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇണ്ടക്ഷൻ കുക്കറ് അങ്ങനെ പല പുതിയ ടെക്നോളജിയും വന്നപ്പം മാറി മാറി വന്നിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ തന്നെയാണെങ്കിൽ തന്നെ വളരെ കുറവാണ് പണ്ടത്തെ ഒരു കൾച്ചറിൽ നിന്ന് വരുന്നതിനെക്കാൾ നല്ലപോലെ കുറവാണ് നമ്മളോരോരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെതന്നെ എന്താണ് നമ്മള് പൊതുവേ കുറച്ച് പാത്രങ്ങളേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളു നമ്മുടെ ടെക്നോളജി അത്രയ്ക്ക് അഡ്വാൻസിഡായി വന്നിട്ടുണ്ട്